ഇന്നത്തെ കാലത്ത് മലയാള ഭാഷ സംസാരിക്കുന്നവർ നേരിടുന്ന വെല്ലു വിളികൾ ഒരുപാടുണ്ട് മലയാളം ഇപ്പോൾ താഴ്ത്തി കെട്ടിയിട്ടാണ് എല്ലാവരും മലയാളത്തെ കാണുന്നത് ആദ്യ കാലഘട്ടങ്ങളിലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാവരും സംസാരിക്കാനും എഴുതാനും വായിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് മലയാള ഭാഷ എന്നാൽ ഇപ്പം ഈ കാലഘട്ടത്തിൽ മല മലയാള ഭാഷയെ എല്ലാവരും താ ഏറ്റവും താഴെ തട്ടിലേക്കാണ് താഴെ തട്ടിലുള്ളവർക്കാണ് മലയാള ഭാഷ അറിയുന്നത് എന്നാണ് കണക്ക് കൂട്ടുന്നത് ഇന്നത്തെ കാലത്ത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിനോടും ഇംഗ്ലീഷിനോടും ഹിന്ദിയോടുമാണ് എല്ലാവരും പ്രാധാന്യം നൽകുന്നത് ഒരു കുട്ടിയെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് തന്നെ മാതാപിതാക്കൾ ആദ്യം ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ കുട്ടികളാകട്ടെ ഇംഗ്ലീഷ് പഠിച്ച് വലുതാവട്ടെ എന്നാണ് പറയുന്നത് മലയാളം പഠിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്നാണ് അവരുടെ ഒരു ഒക്കെ ഒരു വിശ്വാസം അവരുടെ കാലഘത്തിലെന്ന് പറഞ്ഞാൽ മലയാളം തന്നെയായിരുന്നു അവർ സംസാരിക്കുന്നതും എഴുതാനും എല്ലാത്തിനും ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഈ കാലഘത്തിൽ കുട്ടികൾ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലോ ഇംഗ്ലീഷ് പറഞ്ഞിട്ടൊ ഒക്കെ വളരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും ഇപ്പം അന്യ നാട്ടിലുള്ളവർ തന്നെ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടാണ് മലയാളം പഠിക്കുന്നുണ്ട് എന്നാൽ ഇപ്പം നമ്മളങ്ങോട്ട് പോയാൽ നമ്മൾ അവരുടെ ഭാഷയല്ല പഠിക്കുന്നത്